എനിക്ക് പാട്ട് വലിയ ഇഷ്ടമായിരുന്നു കുഞ്ഞിലേ മുതലേൻ എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മ പാടും എൻ്റെ ആങ്ങളെയൊക്കെ പാടും അത് കേൾക്കുമ്പോൾ എനിക്കും പാട്ട് പഠിക്കണമെന്ന് ആഗ്രഹം തോന്നി എൻ്റെ അമ്മ എന്നെ അതിന് ഒത്തിരിയായിട്ട് വീട്ടിൽ അതിൻ്റെ അമ്മയും എൻ്റെ കുടുംബാഗങ്ങളും എല്ലാം എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു അതു പ്രകാരം ഞാനും ഞാൻ കുറേശ്ശേ കുറേശ്ശെ പാടുന്നതുകേട്ടപ്പോൾ അവർക്കൊക്കെ എന്നെ പാട്ട് പഠിപ്പിക്കണമെന്നൊക്കെ ആഗ്രഹം തോന്നി അങ്ങനെ അവർ എന്നെ ഒരു ടീച്ചറിൻറെ അടുത്ത് കൊണ്ടുപോയി ചേർത്തു പാട്ട് പഠിപ്പിക്കാൻ എൻ്റെ ടീച്ചറിൻ്റെ പേര് മീരക്കുട്ടി എന്നായിരുന്നു ടീച്ചർ നല്ലപോലെ പാടും എന്നെ നല്ല പോലെ പാട്ടുപഠിപ്പിച്ചും അങ്ങനെ ഞാൻ പത്ത് ഇരുപത് പ്ലസ് ടു വരെ ഇരുപത് പ്ലസ് ടു വരെയൊക്കെ പഠിച്ചു ഞാൻ പാട്ട് പഠിച്ചു നല്ല രീതിയിൽ പാട്ട്പഠിച്ചു എനിക്ക് പാട്ടെന്നു പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഞാൻ പട്ടുപാടി എപ്പോഴും പാടാറുണ്ട് എൻ്റെ മക്കൾക്കും ഞാൻ ഇപ്പം പാട്ടു പറഞ്ഞുകൊടുക്കാറുണ്ട് അവരും കുറേശ്ശയൊക്കെ പാടും അവരും നല്ല രീതിയിൽ പിന്നെ അവർക്ക് സന്തോഷമാണ് പാട്ടെന്നു പറയുമ്പോൾ ആസ്വദിക്കാൻ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കലയാണ് പാട്ട് അങ്ങനെ പാട്ട് കേൾക്കാനും ആസ്വദിക്കാനുമൊക്കെ നല്ല ഇത് തോന്നും നമുക്ക് പാടാറുണ്ട് ഇപ്പോഴും പാടാറുണ്ട് എല്ലാ ദിവസവും ഒരു പാട്ടെങ്കിലും പാടിയിട്ടേ കിടന്നുറങ്ങാറുളളൂ അങ്ങനെ ഒരു സന്തോഷമാണിപ്പോഴും പാട്ടെന്നു പറയുമ്പം നമുക്ക് ഒരിക്കലും മടുപ്പുവരുന്നതല്ലല്ലോ ആ പാട്ട് ഒരിക്കലും നിലയ്ക്കാത്ത ഒരു കലയാണ് പാട്ട് പാട്ടെന്ന് പറയുന്നത് ആ പാട്ട് നല്ല സന്തോഷകരമായ ഒരു കലയാണ് പാട്ട് ഞങ്ങൾ ഈ വീട്ടിലെപ്പോഴും പാടാറുണ്ട് പിന്നെ ചില സമയങ്ങളിലൊക്കെ ഞങ്ങൾ പാടും നല്ല രീതിയിൽ സന്തോഷത്തോടെ പാടും ആ പാട്ടിനെ ആസ്വദിക്കാറുണ്ട് മറ്റുള്ളവർ അത് ആസ്വദിക്കാറുണ്ട് അങ്ങനെ നല്ല രീതിയിലാണ് ഞങ്ങൾ ആ പാട്ടിനെ നല്ല സന്തോഷത്തോടെയാണ് ആ പാട്ടിനെ ഞങ്ങൾ സ്നേഹിക്കുന്നത് എൻ്റെ ടീച്ചറിനും വലിയ സന്തോഷമായിരുന്നു ഞങ്ങൾ പാട്ടു പഠിച്ചു ടീച്ചര് ഞങ്ങളെ ഞങ്ങൾ കുറേയേറെ പേരുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ പാട്ട് പഠിക്കും ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളെ എല്ലാവരെയും നല്ല രീതിയിൽ പാട്ടുപഠിപ്പിച്ചു ടീച്ചറിനെ ഞങ്ങൾ എപ്പോഴും ഓർക്കാറുണ്ട് ടീച്ചര് ടീച്ചറിനെ സംബന്ധിച്ചു പറഞ്ഞുകഴിഞ്ഞാൽ നല്ല പാട്ടുകാരിയായിരുന്നു ടീച്ചറ് നല്ല രീതിയിൽ ഞങ്ങളെ പഠിപ്പിച്ചു നല്ല രീതിയിൽ ഞങ്ങളെ പഠിപ്പിച്ചു ഞങ്ങളെല്ലാവരും നല്ല പാട്ടുകാരായി മിക്കവരും നല്ല നിലയിലൊക്കെ ഒരുമാതിരി ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് ഞങ്ങളിപ്പോഴും ഞങ്ങൾ പാടും എന്നല്ലാതെ ഞങ്ങൾ ഞങ്ങൾ പാട്ടിനൊക്കെ പാട്ട് പാടാനൊക്കെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ കഴിയുന്നുണ്ട് ടീച്ചറിനെ എപ്പോഴും ഞങ്ങൾ ഓർക്കാറുണ്ട് അങ്ങനെ ഞങ്ങടെ പാട്ട് ഞങ്ങൾ ആസ്വധിദിക്കുന്നു ഞങ്ങളുടെ പാട്ട് കേട്ട് മറ്റുള്ളവരും ആസ്വദിക്കാറുണ്ട് സന്തോഷമായിട്ട് പോകുന്നു അങ്ങനെ സന്തോഷം പാട്ടെന്നു പറയുമ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നല്ലേ പാട്ട് അപ്പം പാട്ട് എങ്ങനെ പറഞ്ഞു എങ്ങനെ നോക്കിയാലും പാട്ടെന്നുപറയുന്ന കല എപ്പോഴും ആസ്വദിധിക്കാൻ പറ്റുന്ന ഒരു കലയാണ് പാട്ട് പാട്ട് എപ്പോഴും നമ്മൾ പാടി അങ്ങനെ കൂടുതൽ ഒന്നുകൂടി ഞങ്ങൾ ഇന്നു പാടുന്നതിലും നന്നായിട്ട് നാളെ പാടാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ട് അങ്ങനെ ആ പാട്ട് നല്ല രീതിയിൽ നമ്മൾ ആസ്വദിച്ച് സന്തോഷമാകുന്നുണ്ട് ഞങ്ങൾക്ക് വീട്ടിലും ഒക്കെ പാടാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ പാട്ട് ഞങ്ങളുടെ ആ പാട്ട് അന്ന് പഠിച്ച പാട്ട് ഞങ്ങൾക്കിന്ന് നല്ല രീതിയിൽ ഞങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കലയായി ഞങ്ങൾ അതിനെ സ്വീകരിച്ചിരിക്കുന്നു